ഹലോ ആ ഗ്യ ഗ്യ ആ ആ ആ ഇത് കൺസ്യൂമർ നമ്പർ അറുനൂറ്റി ഒന്ന് നാനൂറ്റി പതിനേഴ് ശാന്തമ്മ ആഹാ എന്നത്തേക്ക് കിട്ടും ആ ആഹാഹാഹാ അതേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടേ ആ അത് ഞങ്ങൾ ഞാനേ ഇപ്പം അടുപ്പായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നതേ സാധാരണ ഇപ്പോൾ ഞങ്ങൾ പുതിയതായിട്ടാണ് സിലിണ്ടർ യൂസ് ചെയ്യാൻ പോവുന്നതേ അപ്പോൾ അതിനേപ്പറ്റി ചെറിയൊരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ മറ്റേ ആ ആ

ആ അതിൻ്റെ ട്യൂബും കാര്യങ്ങളൊക്കെയോ ആഹാ ആ ഹാ ഹാ ആ ആ ആ ആ ആ ഹാ ഹാ ഹാ ഹാ ആ എപ്പോഴും താഴെ സൂ ട്ടെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ ആ ഹാ ഹാ ആ ഹാ ഹാ ഹാ ആ ഹാ ഹാ ആ ആ ആ ഓ അതുശരി ശരി ആ കുട്ടികളൊക്കെ ഉള്ളതാണേ അപ്പം അതുകൊണ്ട് നമുക്ക് ആ പുറത്തിപ്പം വയ്ക്കൽ ബുദ്ധിമുട്ടാണ് അകത്തുതന്നെ ആ അ ആ ഹാ നമ്മളേ അടുക്കളയിലേക്ക് പിന്നെ പ്രത്യേകം എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ ആ ആ ആ ഹാ ഹാ ഹാ ആ ആ ആ ആ ആ ഓ ശരി ശരി ശരി അത് നമ്മൾ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണമെന്ന് അല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു